ഹലോ എടത്ത്വയിലുള്ള തെയ്ക്കുന്ന ചേച്ചിയല്ലേ ലാലി ചേച്ചിയല്ലേ ചേച്ചി ഞാനിവിടെ ചമ്പക്കുളത്ത് സ്കൂളീന്ന് വിളിക്കുവാണേ ടീച്ചറാണെ അവിടെ പഠിപ്പിക്കുന്നത് എനിക്ക് അതെ എന്നാ യൂണിഫോം പിള്ളേരുടെ യൂണിഫോം ഒന്ന് തെയ്ക്കുന്ന കാര്യമൊന്ന് ചോദിക്കാനായിട്ടായിരുന്നു ആ ഇവിടെ ആ ചേച്ചി മുന്നൂറ് പിള്ളേരുണ്ട് അന്നേരത്തേക്കിന് ഒരു ഏകദേശം എത്രയാണ് നൂറ് നൂറ് പെണ്ണുങ്ങൾ ഇരുന്നൂറ് ആ നൂറ്റി അങ്ങനെ ആണും പെണ്ണും ആയിട്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് അന്നേരത്തേക്കിന് അവർക്ക് ജസ്റ്റ് പാൻ്റ് പാൻ്റും ഷർട്ടുവെ ഉള്ളൂ പെണ്ണുങ്ങളുടെ ചേച്ചി ഇച്ചിരി ഒരു ഇച്ചിരി ഇടയ്ക്ക് എന്തോ ഇത് വരുന്നുണ്ട് ആ കോട്ട് പോലെ അതായത് പാവാട ഷർട്ട് പിന്നെ അതിൻ്റെ പുറത്തൂടി ഒരു ചെറിയ ഒരു കോട്ടും കൂടി വരുന്നുണ്ട് ആ അന്നേരത്തേക്കിന് നമുക്കിനി അധികം സമയമില്ല അന്നേരം ചേച്ചി എങ്ങനാണ് തെയ്ച്ചു തരാനായിട്ടത് ഒരു രണ്ടു ജോഡി വീതം വേണം വേണോം താനും അ ഹാ ഹാ ശരിയാണ് അന്നേരം തെയ്ച്ചു തരാമല്ലേ അത് കഴിയുമ്പോൾ പിന്നെ അവ് അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റെ ചെയ്ത് ആണല്ലേ ആ അത് കഴിയുമ്പം പിന്നെ അതു കൊണ്ടൊന്നഡ്ജസ്റ്റെ ചെയ്ത് പോയിട്ട് പിന്നെ ബാക്കി താമസിക്കരുത് കേട്ടോ അത് മറ്റേ ജോഡി ആ പറയാം ആ അതാണ് പാട് അതവരുടെ ആ കോട്ടും ഇതൊക്കെ വരുമ്പോഴെ ഭയങ്കര അതാണ് എങ്ങനാണ് ഏച്ചി ഒരു ജോഡിക്കൊക്കെ എത്ര വരും ആണുങ്ങടേനും പെണ്ണുങ്ങടെയൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും അല്ലേ എല്ലാംകൂടി വരുമ്പോൾ ആ അങ്ങനെ വരുവല്ലേ ആ എല്ലാം കൂടി വരുമ്പോഴുള്ള ആ ഒരു ഇതല്ലേ ആ ആ ആ ഇനിയിപ്പോൾ ആ ഇതിൻ്റെ

ആണല്ലേ രണ്ട് ആ രണ്ട് ജോഡിയും കൂടിയല്ലേ ഒരു ജോഡിക്ക് അല്ലേ ഓ ഒരു ജോഡിക്കാണ് അല്ലേ ആ ആ ആ ആ അത് തന്നെ ആ ആ ആ അന്നേരതേക്കിനും ആ ഒരു റേറ്റ് അല്ല ഇനിയിപ്പോൾ പെരൻസിനെ ഒന്ന് വിളിച്ചു പറയണം എതൊക്കെയായാലും അവിടുന്ന് തെച്ചാൽ മതി അല്ലാതെ ഇനിയിപ്പം വേറെ ആരോടും ഒന്നും ചോദിക്കുന്നൊന്നും ഇല്ല ആ ആ വരാം പിന്നെ എന്നാ അളവ് ആ അളവ് ആ ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം അവിടെ വരണം എന്നെ തലേദിവസം ഒന്ന് വിളിക്കണം വിളിച്ചിട്ടൊന്ന് വന്ന് എടുക്കേം ചെയ്യണം എന്തെങ്കിലും ഡിസ്കൗണ്ടൊക്കെ തരണം കേട്ടോ ഇത്രയും വരുന്ന അല്ലേ കേട്ടോ ഡിസ്കൗണ്ട് ഇപ്പോൾ ഡിസ്കൗണ്ടില്ല എന്നാലും എല്ലാം ആ തെയ്ച്ച എല്ലാം ഒന്ന് സെറ്റായാലല്ലേ ആ അ അത് തന്നെ ആ ആ ഇത് പാവാടക്കൊക്കെ ഇച്ചിരി കട്ടിയുണ്ടെന്ന് തോന്നുന്നു പറച്ചിൽ കേട്ടിട്ട് പെണ്ണുങ്ങളുടെ അതിച്ചിരി ആ അതുതന്നെ അന്നേരം നമുക്ക് ഇരട്ടി പണി വരും ആ പോകാനായിട്ടിച്ചിരി പാട് വരും ആ അന്നേരത്തേക്കിന് എന്നെ വിളിക്കണേ വിളിച്ചിട്ട് അന്നേരം സ്കൂളിലോട്ടൊന്നിറങ്ങ് ശരിയെന്ന് ഇല്ലില്ലില്ല ഇല്ല ആ ഏൽപ്പിച്ചേക്കാം ഓക്കെ എന്നാൽ